ഞാന് ഒരു ഡാന്സ് പഠിക്കാന് ഉദ്ദേശത്തോട് കൂടി താങ്കളുടെ നമ്പറിലേക്ക് വിളിച്ചതാണ് ഈ ഇന്സ്റ്റിറ്റ്യൂട്ടിന്റെ പേരെന്താണെന്നാണ് പറഞ്ഞത് വേറെ ആഹ് എനിക്ക് കഥകളി ഡാന്സ് കഥകളി പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നെ അപ്പോൾ അവിടെ ആഹ് പേര് രമ്യ വീട് ചങ്ങനാശ്ശേരി

ആഹ് കഥകളി ഡാന്സ് ആണ് നമ്മൾ മെയിന് ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ആഹ് ഒരു മാസം അപ്പം എത്ര ദിവസം ക്ലാസുണ്ട്

ആഹ് ഹാ അങ്ങനെയാ ആഹ് ഇതെത്ര മാസം അങ്ങനെ വല്ലതും ഉണ്ടോ ഡാന്സ് പഠിച്ച് തീരാന് അങ്ങനെ വല്ല സമയമോ അപ്പോൾ ഈ ഫീസ് എന്ന് പറയുമ്പം അതിന്റകത്ത് നമ്മളുപയോയിക്കുന്ന ഡാന്സ് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊക്കെ നിങ്ങൾ തന്നെ തരുമോ അപ്പോൾ അതിന് അതിന് സ്പെഷ്യല് ഫീസ് അടക്കേണ്ടി വരുമോ ആഹ് സ്പെഷ്യല് ഫീസ് ആഹ് ആഹ് ആഹ്

ആഹ് ആഹ് ഓക്കെ ഓക്കെ അപ്പം എത്ര രൂപയാ ഫീസ് എന്നാ പറഞ്ഞത് മന്ത്ലി ഓക്കെ ഓക്കെ

ആഹ് ഓക്കെ ഞാനൊന്ന് അപ്പം അറിയാവുന്നവരോടൊന്ന് പറഞ്ഞേക്കാം നിങ്ങൾ പോസ്റ്ററ് വല്ലതും ഉണ്ടെങ്കിലൊന്ന് വാട്ട്സപ്പിൽ അയക്കുവായിരുന്നെങ്കിൽ ആ ഓക്കെയാണ് ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ആഹ് ആഹ് ഓക്കെ ഓക്കെ താങ്ക് യൂ ഓക്കെ